എക്സ്ക്യൂസ് മി മാഡം പിന്നെ എങ്ങോട്ടേക്കായിരുന്നു പോവേണ്ടത് മൂവാറ്റുപുഴയോ മാം ഇത് മൂവാറ്റുപുഴയ്ക്ക് പോവുന്ന ബസ് അല്ല മാമിന് ബസ് മാറി പോയെന്ന് തോന്നുന്നു

ആ ആണോ മാം ഇത് മൂവാറ്റുപുഴയ്ക്കുള്ള ബോഡ് അല്ല അത് അത് അപ്പുറത്തെ ബസ്സിൻ്റെ ഇപ്പം തൽക്കാലത്തേക്ക് അവർ പോവാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ എടുത്ത് വെച്ചതായിരുന്നു അത് ഞങ്ങൾ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു മാം മാമിന് എങ്ങോട്ടേക്കാണ് പോവേണ്ടത് ആ മൂവാറ്റുപുഴയിലെ മാം ആക്ച്വലി ഇത് ട്രിവാൻഡ്രത്തേക്ക് പോവുന്ന ബസ് ആയിരുന്നു മാം അടുത്ത സ്റ്റോപ്പ് തന്നെ ഉണ്ട് മെയിൻ സ്റ്റോപ്പ് ആണ് അവിടെ ട്രിവാൻഡ്രത്തേക്ക് പോവുന്ന ബസ്സുകൾ നിർത്തുന്നതാണ് മാം അവിടെ ഇറങ്ങിക്കോ എന്നിട്ട് അവിടുന്ന് കയറിയാൽ മതി മാം ഞാൻ എൻ്റെ ഫ്രണ്ടിന് അല്ല അവിടുന്നൊരു ഇവിടുന്നൊരു ഒന്നര മണിക്കൂറിൻ്റെ യാത്ര വരുന്നുണ്ട് ആ ആ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി ബസ് കിട്ടുന്നതാണ് മാം ഇനി എനിക്ക് തോന്നുന്നത് ബസ് ഒന്നരയ്ക്കാണ് ഉള്ളത് എന്നാണ് ഇപ്പം പന്ത്രണ്ടര ആയിട്ടല്ലേ ഉള്ളൂ മാം ആ ഒന്നരയ്ക്ക് സാധാരണ ആ സമയത്ത് ബസ് പോവുന്നതായിരുന്നു മാം ഇനി ഒറ്റയ്ക്കല്ലേ പോവുന്നത് ആ ഇങ്ങനെ ഒറ്റയ്ക്ക് പോവുമ്പം ശ്രദ്ധിച്ച് ബസ്സിലൊക്കെ കയറ് കേട്ടോ കാരണം എത്രയായാലും ഒരു പെൺകുട്ടിയല്ലെ അപ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് യാത്ര ചെയ്യാൻ നോക്ക് ആ ഓക്കെ മാം എന്തായാലും ഇവിടെ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി എന്തായാലും ഇപ്പം തന്നെ ബസ് വരുന്നതാണ് മാമിൻ്റെ വീട് എവിടെയാണ് വായനാടോ വയനാട് എവിടെയാണ് ആ ഓക്കെ മാം ഇവിടെ ട്രിവാൻഡ്രം ബസ് വളരെ കുറവാണ് അത് ഈ ഒന്നരയ്ക്ക് ഒരു ബസ് ഓടുന്നുണ്ട് ആ ബസ് ഇന്ന് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നമ്പർ തരാം പുള്ളിക്കാരൻ ഈ ട്രിവാൻഡ്രം ബസ്സിലെ കണ്ടക്ടർ ആണ് ഇനിയിപ്പം ഒന്നരയ്ക്ക് ആ ബസ് കണ്ടില്ലെങ്കിൽ അതിലേക്കൊന്ന് കോൾ ചെയ്തുനോക്ക് ചിലപ്പം എന്നിട്ട് പുള്ളി പുള്ളിക്കാരനെ ഒന്ന് വിളിച്ച് അന്വേഷിച്ച് നോക്ക് ആ ഓക്കെ